എന്റെ വീടിന്റെ അടുത്തു തന്നെയായിട്ട് മീന്സ് സ്റ്റേഡിയമുണ്ട് സ്റ്റേഡിയം മീന്സ്സ് നമ്മള് ഫുട്ബോളൊക്കെ കളിക്കാനുള്ള സ്റ്റേഡിയം ചെറുപ്പത്തിലാ ടൈമിലൊന്നും ഉണ്ടീന്നില്ല അപ്പോള് നല്ലവണ്ണം ഒരോ സ്ഥലത്താണ്ണ്ടേലും അവിടേം ഇവിടേം ഒക്കെയായിട്ടോരോരോ സ്റ്റേഡിയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോള് ഫുട്ബോള് കളിക്കാനുള്ള മീന്സ് ടൈമാകുമ്പോള് അതായതൊരു രാത്രിയൊക്കാകുമ്പോള് ചെക്കന്മാരൊക്കെ കൂടിയാണ്ട് മീന്സ് എന്റെ അനിയനും ഒക്കെ പോവാറുണ്ട് അങ്ങോട്ട് അപ്പോള് രാത്രിയാകുമ്പോള് എല്ലാവരുംകൂടി പോയാണ്ട് മീന്സ് ഫുട്ബോള് കളിക്കാറുണ്ട് അതുപോലെ തന്നെ ഷട്ടില് ഗ്രൗണ്ടുണ്ട് മീന്സ് പ്രദേശത്തുനിന്ന് പറയണെന്നുണ്ടെങ്കില് കുറച്ചൊക്കെ അപ്പുറത്ത് ഞങ്ങളുടെ വീടിന്റെ കുറച്ചൊക്കെയൊരു ഒരൂ രണ്ട് കിലോമീറ്ററക്കെ പോയാല് രണ്ടല്ല ഒരൂ കുറച്ചൊക്കെ പോയാല് അങ്ങാടിയിലൊക്കെയായിട്ട് ഷട്ടിലിന്റെ ആ അതുണ്ട് ഇത് രണ്ടാണ് ഞാന് കൂടുതല് ഞാന് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എനിക്കോര്മ്മയുള്ള സംഭവങ്ങള് ഷട്ടിലിന്റേതും അതുപോലെതന്നെ ഇത് ബാക്കിയൊക്കെ കുറവാണ് കാരണം ഇതൊരു ഉള്നാടാണ് അപ്പോള് ഉള്നാടായതുകൊണ്ട് തന്നെ അത്രത്തോനെ വികസനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങാടിയിലൊക്കെ ആണെന്നുണ്ടെങ്കില് മീന്സ് ഞങ്ങള് വീടെന്നു പറയുന്നത് കുറച്ചുങ്കൂടി ഉള്ളോട്ടായോണ്ട് അത്ര വലിയ കാര്യങ്ങളും സംഭവങ്ങളുമില്ല പക്ഷേ എന്നാലും ഇവിടടുത്തു തന്നെയായിട്ട് ഷട്ടില് ഗ്രൗണ്ടുമുണ്ട് അതുപോലെതന്നെ ഫുട്ബോളിന്റെ ഇതുമാണ് എനിക്കോര്മ്മയുള്ളത് നമ്മളിപ്പോള് ഗ്രാമങ്ങളാകുമ്പോള് അത്രത്തോനെ വികസനങ്ങളും കാര്യങ്ങളൊന്നുമുണ്ടാവില്ലല്ലോ അപ്പോള് അതാണ് കൂടുതലായിട്ടും എനിക്കോര്മ്മയുള്ളത് അതുകൊണ്ടുതന്നെ എല്ലാവരും ആ ഒരു ടൈമില് എല്ലാവരും ഇവിടത്തെ എല്ലാരുങ്കൂടി കൂടുതലായിട്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോള് കൂടുതലായിട്ടും മീൻസ് ചെക്കന്മാരൊക്കെ ഒരു ടൈമാവുമ്പോള് അവിടേക്ക് കളിക്കാനൊക്കെ പോകുന്നതായിട്ടാണ് എനിക്ക് ഓര്മ്മയുള്ളത്